ആറ് രണ്ട് രണ്ടായിരത്തി പത്ത് ഏഴ് നാല് രണ്ടായിരത്തി അഞ്ച് എട്ട് രണ്ട് രണ്ടായിരത്തി ഒന്ന് ഒന്ന് ഒന്ന് രണ്ടായി രണ്ടായിരം അഞ്ച് അഞ്ച് രണ്ടായിരത്തി പത്ത് ഏഴ് രണ്ട് രണ്ടായിരത്തിയാറ്